നമ്മുടെ ഞങ്ങടെ ഒക്കെ പ്രദേശത്തുള്ള സ്കൂളുകളിൽ ചരിത്രം പഠിപ്പിക്കാറുണ്ട് ഇനി സ്കൂളിൽ പഠിപ്പിച്ചിരിക്കേണ്ടിയിരുന്ന ചരിത്രമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ മഹാന്മാരുടെ ചരിത്രങ്ങളുണ്ട് കൂടുതലും സ്വാതന്ത്ര്യ സമയത്തുള്ള ചരിത്ര ചരിത്ര വ്യക്തികളുടെ കഥകൾ ഒക്കെയാണ് ചരിത്രത്തിൽ പറയുന്നതെങ്കിലും നമ്മുടെ ഈ അടുത്ത കാലത്ത് വന്ന രാഷ്ട്രീയത്തിലെ പൊതു നല്ലവരായ ആളുകളുണ്ട് അവർ ചെയ്ത പല നല്ല കാര്യങ്ങളുണ്ട് അതെല്ലാം ചരിത്രത്തിൽ വന്നാൽ വളരെ നന്നായിരിക്കും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന പല രാഷ്ട്രീയ നേതാക്കന്മാരെക്കുറിച്ചും പുതുതലമുറക്ക് ഒരു അറിവും ഉണ്ടാവും അപ്പോ ഇത് ഈ അടുത്തു വന്ന രാഷ്ട്രീയ നേതാക്കളുടെ ഒരു ചരിത്രം കൂടി ഇനി ഇനിയുള്ള പാഠപുസ്തകങ്ങളിലൊക്കെ ചേർക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം